ആ ഞാൻ ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ ടി വി ഇതൊക്കെ വാങ്ങിക്കാൻ ആണ് വന്നിരിക്കണത് ആദ്യം ടി വി നോക്കാം

മുപ്പത്തിരണ്ട് ടി വി എൽ ഇ ഡി എൽ ഇ ഡി മതി ഏതൊക്കെയാണ് ഉള്ളത് ആ ഓക്കെ എന്നാൽ സാംസംഗ് മതി ആ ഓക്കെ എന്നാൽ ഒന്ന് നോക്കാം ആ ഓക്കെ എന്നാൽ എനിക്ക് എൽ ജി മതി ആ എൽ ജി മതി വാറണ്ടി എങ്ങനെയാണ് ക്യാഷ് ഓൺ ഡെലിവറി തന്നെയാണ് ത്രീ ഇയേർസ് അല്ലെ ഓക്കെ ഓക്കെ ഓക്കെ

ഓക്കെ വല്ല ഓഫർ വല്ലതും ഉണ്ടോ ഓക്കെ ആ റേറ്റ് എത്രയാണ്

ത്രീ സീറോ ഓക്കെ തേർട്ടി ആ ഓക്കെ അതൊന്ന് ഓഫറായിട്ട് തെർട്ടി അല്ലെ ഓക്കെ ഓക്കെ ആ ആ ഇനി വാഷിംഗ് മെഷീൻ നോക്കാം വേൾപൂൾ മതി ഫ്രണ്ട് ഓപ്പൺ ഉള്ളത് മതി കേട്ടോ ഓട്ടോമാറ്റിക്ക് മതി ഓട്ടോമാറ്റക്ക് ആ ഡ്രയർ വേണം ഡ്രയർ വേണം ആ ഓക്കെ ക്യാഷ് എങ്ങനെയാണ് ഓക്കെ റെഡ് ആൻഡ് വൈറ്റ് മതി ആ ഓക്കെ ഓഫറ് വല്ലതും ആ ഫിഫ്റ്റി ഫോറ് ഓക്കെ വാറണ്ടിയോ ടു ഇയേർസ് റീപ്ലേസ് റീപ്ലേസബിൾ ആണോ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഇനി ഫ്രിഡ്ജ് നോക്കാം ആ ടി വിയും ആ വാഷിംഗ് മെഷീനും അതുമതി ഇനി ഫ്രിഡ്ജ് ഡബിൾ ഡോർ ആണേ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആ വേൾപൂളിൻ്റെ മതി ആ ലെയറ് പോലെ തുറക്കുന്നത് മതി ഓക്കെ ആ വേൾപൂൾ മതി വേൾപൂൾ മതി ആ ഇത് മതി ഇത് മതി ഓക്കെ ഇതിൻ്റ മെറൂൺ കളർ ഉണ്ടോ ഓക്കെ ഓക്കെ എന്നാൽ ഇത് ആ എന്നാൽ വാഷിംഗ് അല്ല ഇത് നമ്മൾക്ക് വേണ്ട ഫ്രിഡ്ജ് വേണ്ട അത് മെറൂൺ കളറ് അത് ഓ എന്താ അവൈലബിൾ ആവുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ നമ്പറ് തരാം പെയിൻറ് അടിക്കുകയോ വേണ്ട വേണ്ട ഇത് വേണ്ട അല്ല കുഴപ്പം ഇല്ല ഇത് ഇപ്പം രണ്ട് എണ്ണം എടുത്തുവല്ലോ ഇനി എ സി നോക്കാമെന്ന് വച്ചിട്ടാണ് ആ എ സി വേണം അല്ല വേണ്ട ഫ്രിഡ്ജ് വേണ്ട ഓക്കെ കുഴപ്പം ഇല്ല എ സി നോക്കാം ആ ശരി ലോയ്ഡ് മതി വൺ പോയിൻറ് ഫൈവ്

ലോയ്ഡ് മതി

സെവെന്റി ഫൈവ് തൗസൻറ് ഓഫർ ഒന്നും ഇല്ലല്ലൊ സിക്സ്റ്റി ഫൈവോ ആ എന്നാൽ ഇതുതന്നെ സെലക്ട് ചെയ്യാം ഓക്കെ എന്നാൽ ബില്ല് ഇട്ടുകൊള്ളൂ പിന്നെ സാധനം ഇത് കൊണ്ടുവന്ന് തരാൻ പറ്റുമോ നിങ്ങളേതിൽ അങ്ങനത്തെ സൗകര്യം ഉണ്ടോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ അതു തരാം ഓക്കെ ആ ശരി ഓക്കെ ആ ആ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ